ആ ഹലോ ആ ആ പിന്നെ ഫ്രൂട്ട്സ് കടയല്ലേ എനിക്ക് ഒരു കിലോ നെല്ലി എനിക്കൊരു കിലോ നെല്ലിക്കാ വേണം അതു സെപ്പ്രേയ്റ്റ് എനിക്ക് പാക്ക് ചെയ്ത് തരാമോ പറ്റുമോ നടക്കുമോ ആ ഒരു കിലോ നെല്ലിക്കായും ഒരു കിലോ ചക്ക ഒരു കിലോ ഏത്തയ്ക്ക കിലോ വരുന്നത് തൊണ്ണൂറ് ആ അപ്പോൾ ചക്കയ്ക്കോ ചക്ക ഒരു കിലോ നെല്ലിക്കാ ഒരു ഒരു കിലോ നെല്ലിക്ക ആ അത് വരുന്നത് ഒരു കിലോ കാണും അല്ലേ ആ അത് കുഴപ്പം ഇല്ല നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം അതിനെന്ത് വിലയാണ് ചക്കയ്ക്ക് ഒരു കിലോക്ക് ഒരു കിലോ വര് ഒരു കിലോയ്ക്കാ ആ അപ്പം പഴുപ്പിക്കുന്ന ഒരു ചക്കയ്ക്ക് ആണെങ്കിലോ ഇരുനൂറ് രൂപ വരും ആ ഇടിച്ചക്കയ്ക്ക് ആണെങ്കിലാണ് നാനൂറ്റമ്പത് ആ അതനുസരിച്ച് ആ ആ അപ്പം എനിക്കൊരു ഒരു കിലോ ചക്കയെടുത്തോ പിന്നെ എനിക്ക് ഏത്തക്കായും കൂടെ വേണമായിരുന്നെ ആണോ ഇരുപത്തഞ്ച് എനിക്ക് നാടന് കാ മതി എനിക്ക് പാണ്ടിയുടെ വേണ്ട നാടന് കാ മാത്രം മതി എനിക്ക് അപ്പോൾ ഓറഞ്ചും ആപ്പ്ളോക്കെ ഞാന് നിങ്ങളോട് ബുക്ക് ചെയ്ത് ചെയ്താൽ എനിക്ക് അതെന്റെ അതെന്റെ വീട്ടിൽക്കൊണ്ട് എത്തിക്കുമോ ആണോ അപ്പം എനിക്ക് അപ്പം ആത്തച്ചക്കയുണ്ടല്ലേ അപ്പം ഒരു കാര്യം എനിക്ക് അതെക്കെ ആ ആ എന്നാൽ ഇരുന്നോട്ടെ എന്നാൽ ആ വേണം വേണം വേണം എനിക്ക് തണ്ണിമത്തനും ഒക്കെ വേണം എനിക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുന്ന ആ ഒരു സജ്ജീകരണം ഉണ്ടോ നിങ്ങൾക്ക് ഓ ഉണ്ടുണ്ടല്ലേ ആ ഉണ്ട് ഉണ്ടല്ലോ അല്ലേ ആ അപ്പം അതിന് എന്നാ നിങ്ങൾ എന്നാ കൂടുതൽ ചാര്ജ് ചെയ്യുമോ ഇത് ചാര്ജ് ഒരു കൂടുതൽ ഇതായിട്ട് എടുക്കുമോ പൈസ കൂടുതൽ നമുക്ക് ചാര്ജ് എടുക്കുമോ കൂടുതൽ ചാര്ജ് എടുക്കത്തില്ല ഓക്കെ ആ ആ ആ ആ ആ ആ അപ്പ ആപ്പ്ള് നല്ല ആപ്പിള് ഉണ്ടോ ആപ്പ്ള് ആ എനിക്ക് റെഡ് ആപ്പ്ളാ വേണ്ടെ ഗ്രീന് ടൈപ്പ് വേണ്ടാ എനിക്ക് റെഡ് മതി ആപ്പ്ള് ആ പച്ചമുന്തിരിങ്ങ മതി കുരു ഇല്ലാത്തതല്ലേ കുരു ഉള്ളത് എനിക്ക് വേണ്ട കുരു ഇല്ലാത്തതല്ലേ ആ

ആ ആ ഓ ആ ആ ആ ആ ആ ആ ആ

കിലോയ്ക്ക് അല്ലേ ആ ആ അപ്പം എനിക്ക് ഇപ്പോൾ ഒരു ഇരുപത് കിലോ വേണമെങ്കിൽ വൈൻ ഉണ്ടാക്കാനായിട്ട് അപ്പം അത് അനുസരിച്ച് നിങ്ങൾ ബില്ല് ഇച്ചിരികൂടെയും കുറച്ച് തരുമോ ആ അപ്പം നമുക്ക് അതനുസരിച്ച് അമ്പത് എന്നാണല്ലോ പറഞ്ഞത് ഒരു കിലോയ്ക്ക് പൊഴിഞ്ഞ് പോണത് അപ്പം അത് എനിക്കത് അതിൻ്റെ അനുസരിച്ച് കുറച്ചുകൂടെയും കുറഞ്ഞ് തരാ നാൽപ്പത് രൂപ വെച്ച് ശരി ആ പിന്നെ നമ്മുടെ ഇത് ഉണ്ടല്ലോ ഈ ആത്തച്ചക്കയില്ലേ അതെന്ത് വിലയാണെന്നാ പറഞ്ഞത് നൂറ്റിയിരുപത് ആ ചീഞ്ഞതൊന്നും അല്ലല്ലോ നല്ല നല്ല ആണല്ലോ മ്മ് മ്മ് ആ ആ ആ ഹാ ഹാ ഹാ ആ ആ ഇല്ലല്ലോ ഹാ ആ ആ ആ ആ അപ്പം എന്നാൽ എനിക്ക് അതിന്റെയെല്ലാം എന്നാൽ എനിക്കൊന്ന് എനിക്കിത് അതും എല്ലാം എടുത്തോ പിന്നെ എനിക്ക് അത്യാവശ്യം ഉള്ളതാ ഞാനിപ്പം പറഞ്ഞത് നെല്ലിക്കായും ഒരു കിലോ ചക്ക ഒരു കിലോ ഏത്തയ്ക്ക ഒരു കിലോ ആ അപ്പോൾ ആ ശരി എന്നാൽ ചെറുപഴം പൂവൻപഴമാണോ ഉള്ളത് അല്ലേ അതെന്നാ വിലയാ ആ പൂവൻപഴത്തിന് എന്നാ വിലയാ നാൽപ്പത്തഞ്ച് രൂപ ആ എന്നാൽ അതുംകൂടെ എടുത്തോ രണ്ട് കിലോ കേട്ടോ ആ സപ്പോട്ടയ്ക്കക്ക് ഒക്കെ എന്നാ വിലയാ കിലോയ്ക്ക് എന്നാ വിലയാ എണ്പത് രൂപയാണോ ആ എന്നാൽ അതൊരു മൂന്ന് കിലോ എടുത്തോ എനിക്ക് ഏറ്റവും ആ ഏറ്റവും നല്ലതല്ലേ നല്ല സാധനെ എടുക്കാവൊള്ളൂ അല്ലാതെ വിളയാത്തത് ആ വിളഞ്ഞതും ഇതൊക്കെ എടുക്കാവൊള്ളൂ അല്ല പൊട്ടൊന്നും എടുത്ത് വെച്ചേക്കരുത് കേട്ടോ ആ ആ ആ ആ ആ ബോധം ഉണ്ടെങ്കിൽ ആ ബോധത്തോടെ എനിക്ക് എടുത്ത് തരിക കേട്ടോ ശരി എന്നാൽ ഓക്കെ എന്നാൽ ഓക്കെ എന്നാൽ താങ്ക് യൂ കേട്ടോ ആ ആ ഓക്കെ